നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കുറേ ഓർമ്മകളായി നിൽക്കുന്നതാണ് ഇന്നെൻ്റെ ചിർ ചിത്രങ്ങൾ കാരണം നമ്മുടെ സ്കൂൾ കാലങ്ങളിലും കോളേജ് കാലങ്ങളിലും നമ്മുടെ ഒരു ഇരുപത് റ്റു മുപ്പത് പ്രായത്തിൽ നമ്മളേറ്റവും കൂടുതൽ തകർത്ത ഏറ്റവും കൂടുതൽ സന്തോഷിച്ച് നടക്കുന്നൊരു പ്രായമായിരിക്കും ആ കാലം ആ ഒരു പ്രായങ്ങളിൽ നമുക്ക് കുറേ ഓർമ്മകൾ മാത്രം മിച്ചം വെച്ചാണ് നമ്മുടെ പ്രായം മുന്നോട്ട് പോകുന്നത് ഈ നല്ല ഓർമ്മകൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയെടുക്കാൻ സാധിക്കുന്ന ഏതാനും അവസരങ്ങളാണ് ഈ ചിത്രങ്ങൾ അഥവാ ഫോട്ടോസ് എന്ന് പറയുന്നത് ഈ ചിത്രങ്ങൾ പകർത്താനായി ഞാൻ പോകാറുള്ള സ്ഥലങ്ങൾ എൻ്റെ കോളേജിൻ്റെ തൊട്ടടുത്തുള്ള കുറേ സ്ഥലങ്ങളാണ് അത് അതിനകത്ത് ആഷ്ലി ബംഗ്ലാവ് വരാം അതിനകത്ത് അമ്മച്ചി കൊട്ടാരം വരാം പീലിക്കുന്ന് വരാം പിന്നെ ഇവിടുത്തെ സൂഫി സൂഫിയായ വീർ മുഹമ്മദിൻ്റെ കബറിടമാകാം ഈ സ്ഥലത്തേക്കൊക്കെ പോകുന്ന സമയം വളരെ മനോഹരമാണ് കാരണം നല്ല പ്രകൃതി രമണീയവും അതുപോലെ തന്നെ പച്ചപ്പും കിളികളുടെ ശബ്ദവും അവിടെ ഈ സ്ഥലത്തിന് മനോഹാരിത മാത്രമല്ല അത് അതിലുപരി അതിൻ്റെ ആ ഒരു ആ ഒരു സ്ഥലം നമുക്ക് തരുന്ന സമാധാനവും ശാന്തിയുമെന്ന് പറയുന്നത് അതിന് നമുക്ക് ചിന്തിക്കാവുന്നതിലുമപ്പുറമാണ് കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും പോയി ഒന്ന് സന്ദർശിക്കേണ്ട സ്ഥലങ്ങളാണ് ഇതൊക്കെ കാരണം നമ്മുടെ ജീവിതത്തിൽ ഞാനിപ്പെൻ്റെ കോളേജ് കാലങ്ങളിൽ നല്ല ചിത്രങ്ങൾ പകർത്താൻ പോകാറുള്ള സ്ഥലങ്ങളാണ് ഇവയൊക്കെ ഈ നല്ല ചിത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രായമാകുമ്പോൾ ഒക്കെ നമ്മൾ വാർദ്ധക്ക്യത്തിലെത്തുമ്പോൾ നമ്മുടെ കൊച്ചുമക്കളെയായിട്ടും നമ്മുടെ മക്കളായിട്ടും നമുക്ക് കാണിക്കാനുള്ള ഏതാനും ഓർമ്മളാണ് ഈ സ്ഥലങ്ങളും ഈ നമ്മുടെ ഈ പ്രായങ്ങളൊക്കെ കാരണം ഈ നല്ല സ്ഥലങ്ങൾ ഇനിയും നമ്മളെ മുന്നോട്ട് വരും കാലങ്ങളിൽ ഇതു പോലെ തന്നെ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല കാരണം നമ്മുടെ നാടിൻ്റെ സ്ഥിതി ഗതികൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും അപ്പം ഈ സ്ഥലങ്ങളുടെ രൂപവും ഭാവമൊക്കെ മാറിക്കൊണ്ടിരിക്കും അതു കൊ അതു കൊണ്ട് ഈ സ്ഥലങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ഇരിക്കുമ്പോൾ തന്നെ നല്ല സ്ഥലങ്ങളിൽ ചെന്ന് സന്ദർശിച്ച് അവിടുത്തെ നല്ല ചിത്രങ്ങൾ പകർത്താനായി നമുക്ക് സാധിക്കണം അതാണ് അതിൻറ്റെയൊരു ഏറ്റവും മനോഹരമായ ഭാഗമെന്ന് പറയുന്നത് നമ്മുടെ ഈ ലോകത്ത് ഇഷ്ടം പോലെ മഹാത്ഭുതങ്ങളുണ്ട് അതിപ്പം സ്റ്റാച്യൂ ഓഫ് ലിബേർട്ടി ആകാം ക്രൈസ്റ്റ് റെഡീമർ ആകാം പിന്നെ പാരിസിലുള്ള ഐഫിൽ ടവറാകാം പിന്നെ പിസ ഗോപുരമാകാം ഈജിപ്ത്തിലുള്ള പിരമിഡ്സ് ആകാം ഇവയ്ക്കൊന്നും തരാൻ പറ്റാത്ത പല കാഴ്ചകളും പല അനുഭവങ്ങളും നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരോടുള്ള അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു സ്ഥലത്തിന് നമുക്ക് സ്നേഹി തരാൻ കഴിയും കാരണം ആ സ്ഥലങ്ങൾ ഒരു ചിത്രത്തിനു വേണ്ടി മാത്രമല്ല നമ്മുടൊരു ഓർമ്മയാണ് നമ്മൾ ജീവിതത്തിൽ ഓർക്കും നമ്മൾ വാർദ്ധക്യത്തിൽ ആ സ്ഥലത്ത് വന്നിരിക്കുമ്പോൾ നമ്മളോർക്കും ഓക്കെ ഈ സ്ഥലത്തിലാണ് ഞാനന്ന് എനിക്ക് ഇന്ന പ്രശ്നം വന്നപ്പോൾ അല്ലെ ഇന്ന സന്തോഷം വന്നപ്പോൾ ഞാനാഘോഷിച്ചത് അല്ലേ സന്തോഷിച്ചത് അല്ലേ കരഞ്ഞത് ഈ ഒരു സ്ഥലത്താണ് എന്നുള്ള ആ ഒരു ചിന്ത നമുക്ക് വരും അതിലുപരി നല്ല ചിത്രങ്ങൾ നമുക്ക് തരാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു ഓർമ്മയെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ നമ്മുടെ ഏറ്റവും നല്ല ചിത്രങ്ങളുള്ളത് നമ്മൾ പഠിക്കുന്ന കാലങ്ങളിലായിരിക്കാം അല്ലേ നമ്മുടെ ചെറുപ്പങ്ങളിലായിരിക്കാം അത് പകർത്തിയെടുക്കുന്നവരുടെ ആ ഒരു സ മനസ്സിലെ സന്തോഷവും ഇഷ്ടവും കൂടിയാണ് ആ നല്ല ചിത്രങ്ങളിൽ അല്ലേ ആ സ്ഥലങ്ങളിൽ പ്രതിധ്വനിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു